പിന്നെ എനിക്ക് കോവളം ബീച്ചൊര് ടൂറ് പോകണം ഫാമിലിയായിട്ട് ഒര് രണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് ആ കോവളം ബീച്ച് ഓക്കെ അത് തന്നെ കോവളം ബീച്ച് ഒര് പത്ത് പതിനാല് പേര് ഒര് പതിനാല് പേര് കാണും അല്ല നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുവെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യുക ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ചാർജ് കൂട്ടിക്കോ നാളെ നാളെ നാളെ നാളെയോ മറ്റന്നാളോ മറ്റന്നാള് മറ്റന്നാള് ഓക്കെ മറ്റന്നാള് മതി ഓക്കെ ആറ് മണി ആറ് മണി ഓക്കെയാണ് ഓക്കെ ഓക്കെ ആ ആ ആ ഓക്കെ കുട്ടികളും കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കിഡ്സൊക്കെ ഉണ്ട് ആ ആ ആ കുറച്ച് പാർക്കും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കളിക്കുന്ന കിഡ്സ് കളിക്കുന്ന കുറെ സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും ബെറ്റർ ആണ് ഓക്കെ ഓക്കെ

ആ ആ

ഓക്കെ റൂമ് നിങ്ങളുടെ ആ റൂമ് റൂം വേണം ഒരു പ ഒരു പത്ത് റൂമ് മതി പത്ത് അതെ പ പത്ത് മുറി മതി എസിയാണ് എ സി ഡബിൾ ബെഡാണ്

ഫുഡിനകത്ത് നിങ്ങൾക്ക് എന്തേലും സ്പെഷ്യൽ ആഡ് ചെയ്യാൻ പറ്റുവെങ്കിൽ ഒന്ന് ആഡ് ചെയ്യുക ഓക്കെ ഓക്കെ ഓ ഓക്കെ ഓക്കെ ബാക്കി ഡീ ഓക്കെ ബാക്കി അത് തന്നെ ഓക്കെ ഓക്കെ ആ ബാക്കി ഡീറ്റെയിൽസൊക്കെ അതൊക്കെ ഞാന് അതൊക്കെ എങ്ങനെയാണ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ

വേറെ സംശയം അതായത് എന്താ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസായിട്ടെന്തേലും ആധാറോ അങ്ങനെ എന്തേലും എടുക്കണോ അതോ ഫോം ഫിൽ ചെയ്യാനുള്ള ഓക്കെ ഫോർം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മറ്റേത് ആ അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ ശരി ഞാൻ എന്തേലും ഡൗട്ടുണ്ടേൽ ഞാൻ വിളി വിളിക്കാം വിളിക്കാം ഓക്കെ ഈ നമ്പറിൽ വിളിച്ചാൽ പോരെ ഓക്കെ ആ കൺഫേം ചെയ്തോ ഈ നമ്പറിൽ അല്ലെയോ ഓക്കെ കൺഫേം ചെയ്തോ കൺഫേം ചെയ്തോ ശരി എന്നാൽ ശരി